മഹീന്ദ്ര സൊനാലിക പ്രീത് ഫോഴ്സ് സ്വരാജ് അങ്ങനെ തുടങ്ങി പലതരം ബ്രാൻഡിലുള്ള ട്രാക്ടറുകളിന്ന് വിപണിയിൽ കണ്ട് വരുന്നുണ്ട് അത് ഓരോരുത്തരവരുടെ സാമ്പത്തിക സ്ഥിതീം എല്ലാം നോക്കീട്ടാണ് അവരത് വാങ്ങിക്കാറ് പിന്നെന്തിന് വേണ്ടീട്ടാണ് അവർക്ക് ഉപയോഗം കൂട്തലുള്ളത് അതിനനുസരിച്ചിട്ട് ഓരോ കർഷകരും അത് വാങ്ങിക്കാറുണ്ട് അത് കൃഷികാര്യങ്ങൾക്ക് ട്രാക്ടറ് നല്ലൊരു സഹായകരമാണ് അതായത് വിതയ്ക്കൽ കൊയ്യൽ നടൽ ഇതിനൊക്കെ വേണ്ടീട്ട് പലതരത്തിലുള്ള ട്രാക്ടറ്കളുണ്ട് അതൊക്കെ ഉപകാരപ്രദമാണ് ഈ പരമ്പരാഗതരീതീലുള്ള കൊയ്ത്ത് വിതക്കൽ ഇതൊക്കെ ചെയ്യുമ്പഴേക്കും കുറെ സമയമെടുക്കാറുണ്ട് അപ്പം അതിന് പകരം ഇങ്ങനെ യന്ത്രവൽകൃതമായ രീതിയിൽ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് തന്നെ ജോലികൾ തീർക്കാമ്പറ്റും രണ്ടും മൂന്നും ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ടന്നെ തീർക്കാമ്പറ്റും മാത്രമല്ല കുറച്ചും കുടെ എളുപ്പമായിരിക്കും ഇപ്പം കുറെ വെയ്റ്റക്കെ തലേയിൽ കൊണ്ട് ചുമന്ന് നടക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ട്രാക്ടറിൻ്റെ പലതരത്തിലുള്ള അത് യൂസ് ചെയ്തിട്ടുണ്ട്ന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അത്രേം ഭാരം എടുക്കേണ്ട രീതിക്ക് അതക്കെ മാറ്റി കിട്ടും നമുക്ക് പിന്നെ കൂടുതൽ ജോലീ ചെയ്യാൻ സാധിക്കും ഒരാൾ ചെയ്യുന്ന ഒരു എട്ട് മണിക്കൂറിൽ ചെയ്യണ ജോലിയെക്കാൾ കൂട്തൽ ഒരു ട്രാക്ടറ് നമ്മൾ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാമ്പറ്റും